മുഹമ്മദലി പെയ്ൻ്റർ അല്ലേ ആ ഞാൻ ഇവിടെ പറമ്പിൽനിന്ന് രാജേഷ് എന്ന് പറയും ഇപ്പം എൻ്റെ വീട് മൊത്തമായിട്ടൊന്ന് പെയ്ടിന്റ് അടിയ്ക്കണം അതിന് എത്ര ദിവസം കൊണ്ട് നിങ്ങൾ പെയ്ടിന്റ് അടിച്ച് തരും നിങ്ങൾ മോഡല് ഓരോതിനും വ്യത്യസ്ത കളറ് കൊടുക്കും വേണം ഉം പിന്നെ ഒരു മാസം പിടിക്കോ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് വീട് പണി തീർക്കണം ഇതിനൊക്കെ എത്ര ഏകദേശം പണിക്കാരുണ്ട് മാക്സിമം കൂട്ടിയിട്ട് എനിക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് തീർത്ത് തരാൻ പറ്റുമോ ഒന്ന് നോക്ക് ആ പല ഡിസൈൻ ചെയ്യാനും ഉണ്ട് മോഡൽ ആക്കിയിട്ട് വേണം ചെയ്യണം വെച്ചെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തീർക്കും വേണം അപ്പോൾ ഉള്ള പണിക്കാരൊന്ന് സെറ്റ് ആക്കാൻ നോക്ക് വന്നിട്ടാവുമ്പം അതിന് സമയം പിടിക്കില്ലേ നമുക്ക് ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുടിയിരിക്കൽ ഉണ്ടാക്കും വേണ്ടേ ആ ആ പിന്നെ മോഡല് ഒക്കെ ആയിരിക്കണം പറഞ്ഞേക്കണം കേട്ടോ ഒറ്റ കളറും വേണം മോഡലും ചെയ്യണം വൈറ്റ് കളറ് മതി ഡാർക്ക് കളറൊന്നും വേണ്ട ആ രണ്ട് കളർ ആയിട്ട് നല്ല ലൈറ്റ് കളർ ആയിട്ട്

ലാസ്റ്റ് ആ എന്നാൽ ആയിക്കോട്ടെ എന്നാൽ ശരി കേട്ടോ നാളെ സെറ്റ് ആക്കിക്കോ